ആ ഹലോ ഇത് വളക്കട ആ ഞാൻ ഞാൻ തുരുത്തിൽ നിന്നാണേ എനിക്ക് കുറച്ച് കൃഷിയുണ്ട് നെല്ല് കൃഷിയുണ്ട് അപ്പോൾ അതിന് ആ ആ ഒരു ഏക്കറോളം ഉണ്ട് അപ്പോൾ അതിന് ഇടാനുള്ള വളം എന്തൊക്കെയാ ഇപ്പം ഞാൻ വിത്ത് വിതച്ചിട്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസം ആയേ അപ്പോൾ എനിക്ക് ഒന്നാ ആ ആ നെൽപ്പാടം ആ ആ അത് വളം ഇടാനായിട്ടായിരുന്നേ അപ്പോൾ അതിന് ആ എന്തൊക്കെയാ ഇടണ്ടേ ഫോസ്ഫറസ് ആ യൂറിയായും ആ ആ യൂറിയ ഉണ്ടല്ലോ അല്ലേ ആ യൂറിയ എനിക്കൊരു ഒരു ചാക്ക് വേണ്ടി വരുമായിരിക്കുവേ യൂറിയായേ ആ പിന്നെ ആ ആ ഫോസ്ഫറസും ആ ആ വന്നാൽ മതിയല്ലേ അല്ലേ പൊട്ടാഷ്യം ഒക്കെ ഉണ്ടല്ലോ അല്ലേ അ ആ ആ എപ്പഴും കാണുമോ ഏത് സമയത്താ ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് വല്ലതും ഉണ്ടോ ആ ഓപ്പണാ അല്ലേ എത്ര മണി വരെയുണ്ട് കട ആ ആ എത്ര മണി വരെ ഉണ്ട് ആ എട്ട് മണി വരെ ആ ഹാ രാവിലെ എപ്പോഴാ തുറക്കുന്നത്

ആ ആ ശരി ആ ആ ഹാ

ആ ആ ആ ശരി ശരി ആ കൊണ്ടുവരാവേ റോഡ് സൈഡിലാണോ ഇത് ഈ തുരുത്തിൽ എവിടെ ആയിട്ട് വരും ആ ആ ആ ആ ആ അവിടെ രണ്ട് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടല്ലോ രണ്ട് ഓട്ടോ സ്റ്റാൻഡ് ആ ഒന്ന് ദേ ണ്ടാ ഇത്തിത്താനത്തിന് പോവുന്ന വഴിയിൽ ഉള്ളതാണോ ആ ആലിൻ്റെ അവിടുത്തെ അല്ലേ ആ ആ ക്രോസ് ചെയ്ത് ആ ഓ ശരി ആ അപ്പോഴത്തേക്ക് എന്നാൽ ആ പൊട്ടാഷ്യം യുട്രസും ഓരോ ചാക്ക് വീതം ഒന്ന് എടുത്ത് വെച്ചേക്കാവോ ഞാൻ എന്നാൽ വണ്ടിയുമായിട്ട് വരാം ആ ഒരു ആ എത്ര രൂപയാകുമായിരിക്കും എല്ലാം കൂടെ ആ ആ കുഴപ്പം ഇല്ലേ എന്നാൽ ഇന്ന് ആ ആ ആ ചെയ്യാം ആ ഗൂഗിൾ പേ സൗകര്യം ഉണ്ട് അല്ലേ ആ ആ ശരി ശരി ആ എന്നാൽ ഞാൻ ഗൂഗിൾ പേ ചെയ്യാവേ പിന്നെ എന്നാൽ ഒന്ന് എടുത്ത് വെച്ചേക്കുവാണേ ഞാൻ ഒരു അര മണിക്കൂറ് കഴിയുമ്പഴത്തേക്കും വരാവേ ആ ആ ശരി ആ ആ പേര് റൂബി റൂബി ഓക്കെ ആ ഓക്കെ മ്മ്